ഞാനേ ഈ കരിമീന് എത്രയാണ് ഇത് മാർക്കറ്റല്ലേ കരിമീന് എത്രയാ റേറ്റ് എന്ന് അറിയാനായിരുന്നു ഓക്കെ ഓക്കെ എനിക്ക് ഒരു കിലോ കരിമീൻ ഒരു കിലോ കരിമീനിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടീട്ടായിരുന്നു കുറച്ചു കൂടുതൽ കരിമീൻ വേണമായിരുന്നു ആ കുറേ കൊർ ഓക്കെ ഓക്കെ വേറെന്തൊക്കെ മീനാ ഉള്ളതവിടെ

ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് കരിമീൻ വേണം പിന്നെ ഐക്കൂറയും ആവോലിയും ഓരോരോ കിലോ പിന്നെ പ്രോൺസ് ചെമ്മീൻ വലുതാണോ ചെറുതാണോ ഉള്ളത് ഓക്കെ ഓക്കെ എനിക്കൊരു രണ്ട് കിലോ പിന്നെ പ്രോൺസും പിന്നെ കഷ്ണം മീൻ ഒരു അച്ചാറിടാൻ വേണ്ടീട്ടാണ് ഒരു അഞ്ച് കിലോ കഷ്ണം മീൻ നല്ല കഷ്ണം മീൻ നോക്കീട്ട് ഒരു പാകത്തിന് കട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് ഡെലിവെറി ഇല്ലേ നിങ്ങൾ വീട്ടിൽ ഓക്കെ ഞങ്ങൾക്ക് പിന്നെ ഞാൻ സ്ഥലമൊക്കെ നിങ്ങൾക്ക് വാട്സആപ്പ് ചെയ്ത് തരാം എനിക്ക് വേണ്ടത് നിങ്ങളൊന്ന് ചുമ്മാ നോട്ട് ചെയ്തേരെ എനിക്ക് ഒരു കിലോ കരിമീൻ വേണം പിന്നെ നല്ല കഷ്ണം മീൻ കഷ്ണം മീൻ ഏതായാലും കുഴപ്പമില്ല അത് പിന്നെ അച്ചാറിടാൻ വേണ്ടീട്ടാണ് അച്ചാറിടാൻ പറ്റിയ കഷ്ണം മീൻ ഏതാണോ അത് രണ്ട് കിലോ പ്രോൺസ് പിന്നെ കല്ലുമ്മേക്കായ ഉണ്ടെങ്കിൽ ഒരു കിലോ കല്ലുമ്മേക്കായ അതൊന്ന് ക്ളീൻ ചെയ്തിട്ട് കൊടുത്തു വിടണേ വേറേ ഒന്നും വേണ്ട ഇത് ഇതൊക്കെ തന്നെ മതി ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഞാനെന്തായാലും അഡ്രസ്സ് വാട്സആപ്പ് ചെയ്യാം നിങ്ങൾ അവിടേക്ക് ഡെലിവറ് ചെയ്താൽ മതി അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവിടുന്ന് ക്യാഷ് കൊടുത്താൽ പോരെ ഓക്കെ